തീർച്ചയായും കാരണം പാചകം എന്ന് പറയുന്നത് ഒരു കലയാണ് അതൊരു വ്യവസായികമായിട്ട് അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതായിരിക്കും ഉത്തമം അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അച്ചാറുകള് അച്ചാർ ഒരു പിന്നെ അച്ചാർ നമുക്ക് അത് ഇണ്ടാക്കിയിട്ട് നമുക്ക് അത് പിന്നെ വിക്കാനുള്ള ഇത് ഉണ്ട് സംവിധാനമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഉപ്പിലിട്ട ഇത് അതേപോലെ തന്നെ ഉപ്പിലിട്ട കാന്താരി മുളക് പിന്നെ അതേപോലെ നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കി വിൽക്കാൻ പറ്റും തുറമാങ്ങാ ഉണ്ടാക്കി വിക്കാൻ പറ്റും ഇതൊക്കെ പാചകത്തിൽ വരുന്നയാണ് ചിപ്സ് ഉണ്ടാക്കാൻ പറ്റും കാ വറുക്കാൻ പറ്റും ഉണ്ണിയപ്പം ഉണ്ടാക്കി വിക്കാൻ പറ്റും അച്ചപ്പം ഉണ്ടാക്കി വിക്കാൻ പറ്റും നെയ്യപ്പം ഉണ്ടാക്കി വിക്കാൻ പറ്റും ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പം അത് ഒരു വ്യാവസായികമായി മാറ്റുന്നത് കൊണ്ട് ഒരു തെറ്റില്ല കാരണം നമുക്ക് ഒരു മുതൽക്കൂട്ടാണ് നമുക്ക് നമ്മൾ കഷ്ടപ്പെടുന്ന നമ്മൾ ഇഷ്ടത്തോടെ ചെയ്ത കഷ്ടപ്പെടുന്നതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും അപ്പൊ അത് എന്താ കുടുംബത്തിൽ ഉള്ളവർക്കും അവരും നമ്മുടെ കൂടെ സഹായിക്കും ഇത് നമ്മൾ ഒരു പിന്നെ അത് വ്യ വിക്കാനുള്ള ഒരു സംവിധാനം കണ്ടെത്തുക നല്ല രീതിയിൽ നല്ല പ്രോഡക്റ്റ് ആണെങ്കി ആൾക്കാരിലേക്ക് എത്തിക്കുക അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടാണെങ്കി അത് വാങ്ങും അത് നല്ലതാണെങ്കിൽ അടുത്ത പ്രാവിശ്യം അവര് ചോദിച്ച് വാങ്ങും അപ്പം അത് ഒരു നല്ല കാര്യായിട്ട് പിന്നെ ഒരു വിനോദ പ്രവർത്തിയുമാണ് ഒരു വ്യവസായമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും കുടുംബക്കാർക്കും അത് സപ്പോർട്ട് ആയിരിക്കും അത് നമ്മൾ നമ്മളുടെ ജോലി ചെയ്യുന്നു അതിൻ്റെ ഇടക്ക് ഇതും കൂടി ചെയ്യുമ്പോ ഒരു വരുമാനമാണ് നമുക്ക് കിട്ടുന്നത്